ആ ബാങ്ക് അല്ലേ ഓ ഓ എനിക്ക് കുറച്ച് ലോണിന് എന്താണ് അവിടെ ഒരു വഴി വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കാനായിരുന്നു ലോൺ കിട്ടാൻ വല്ല മാർഗവും ലോ

ഞങ്ങൾ എനിക്കിപ്പോൾ ഒരു അമ്പതിനായിരം രൂപയുടെ ആവശ്യം ഉണ്ട് ഓ അതിന് എന്തൊക്കെയാണ് പ്രൊസീജിയറ് ഓ അത്രയേ കിട്ടുകയുള്ളോ നാലായിരത്തി അഞ്ഞൂറേ കിട്ടുകയുള്ളോ ആ അത് മനസ്സിലായി അത് ഇപ്പോൾ ഗ്രാമിനൊക്കെ വളരെ വില കൂടുതലാണല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് ഓ അപ്പോൾ ഇത്ര എത്ര ദിവസം കാലതാമസം കാലതാമസം ഒന്നും ഉണ്ടാവില്ലല്ലോ എല്ലാം കറക്റ്റ് ആയിട്ട് രേഖകളും കൊണ്ട് എത്തിക്കുകയാണെങ്കിൽ ഓ അത്രയേ ഉള്ളൂ ആ ആ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാനങ്ങോട്ട്

ഓ അല്ല ഒന്ന് ഒന്ന് ചോദിച്ചോട്ടെ ഒന്ന് ചോദിച്ചോട്ടെ അറുപത് ദിവസം വരെ എത്രയാണ് പലിശ എൻ്റെ ഈശ്വരാ അത് ഇത്തിരി കൂടുതലാണല്ലോ അപ്പോൾ പിന്നെ അപ്പോൾ അറുപത് അറുപത് മാസം കഴിയുമ്പോൾ ഇതിൻ്റെയും കൂടുതലാവും എന്നാണ് പറയുന്നത് അല്ലേ

ആ അപ്പം എന്നാൽ കൂട്ടുപലിശയോ ഓ ഓ ഓ ഉം അപ്പോൾ നിങ്ങൾ അവിടെത്തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ ആ ആ അപ്പം ഒന്ന് നോക്കട്ടെ നമ്മുടെ സൗകര്യം അനുസരിച്ച് നോക്കാം ഓക്കെ

നിങ്ങളിപ്പോൾ പറഞ്ഞ സ്ഥലം എവിടെയാണ് മരുതൻകുഴിയിൽ എടപ്പഴഞ്ഞിയിൽ മരുതൻകുഴിയിലേക്ക് പോവുമ്പോൾ ഓ ഓ ഓ ഓ ആ ഓക്കെ ഓക്കെ ഓക്കെ